ഞങ്ങളുടെ അടുത്തുള്ള ആരാധനാലയം എന്ന് പറയുന്നത് ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും അവിടെ പോകാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇടയ്ക്ക് വിശേഷങ്ങൾ എന്തെങ്കിലും ഉള്ളപ്പോൾ അവിടെ പ്രത്യേക പൂജകളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ ഞാനവിടെ പോകാറുണ്ട് സന്ദർശിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ആ വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ചവിടെ അനുഷ്ഠാനങ്ങളൊന്നുമില്ല എല്ലാ ക്ഷേത്രങ്ങളിലേയും പോലെ തന്നെ പിന്നെ വർഷത്തിൽ ഒന്ന് ഉത്സവം സപ്താഹങ്ങള് അങ്ങനെയൊക്കെ നടക്കാറുണ്ട് അന്നേരമൊക്കെ നല്ല രീതിയിൽ പോവാറും സഹകരിക്കാറൊക്കെയുണ്ട് പിന്നെ അന്നദാനങ്ങൾ നടത്താറുണ്ട് ദിവസവും രാവിലേയും വൈകുന്നേരവും പ്രത്യേക പൂജകള് നടക്കാറുണ്ട് അത്രേയൊക്കെ ഉള്ളു എനിക്ക് ഞാ നല്ല രീതിയിലത് ആസ്വദിക്കുന്നുണ്ട് എനിക്ക് അതാണ് ഏറ്റവും കൂടുതല് ഇഷ്ടം ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുക വഴിപാടുകളും പൂജകളൊക്കെ ചെയ്യുക അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടമുള്ള കാര്യം പിന്നെ പള്ളികളുണ്ട് പള്ളികളിലും നമ്മൾ പോകും സഹകരിക്കും കൂടുതലിഷ്ടം ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാനാണ്